ഓക്കേ മത്സ്യ പിടുത്തം പറഞ്ഞാൽ ആണെങ്കിൽ ഞാനും എൻ്റെ സുഹൃത്തുംകൂടെ ഇങ്ങന മീൻ പിടിക്കാൻ അതായത് പ്രളയം സമയം നമ്മുടെ അവിടേക്കെത്തി അത്യാവശ്യം വെള്ളം കയറുന്ന സമയത്ത് നമ്മളെ അവിടെ തന്നെ തോടുണ്ട് തോടെങ്കിൽ കുളമുണ്ട് നമ്മൾ സാധാരണ എന്തരാണ് അന്നത്തെ കൊച്ചിൽത്തെ ഇതാണ് അനുസരിച്ച് പോകുന്നു മറ്റേ ടൈഗർ ഫിഷ് മാനത്താണി ഇതൊക്കെ കിട്ടും എന്ന് പറഞ്ഞാണ് പോയത് നമ്മൾ ചൂണ്ടേക്കെ നമ്മൾ മറ്റേ യുട്യൂബിലൊക്കെ കണ്ട് നമ്മൾ സെറ്റ് ചെയ്ത് നമ്മൾ കഷ്ടപ്പെട്ട് അങ് പോയി പോയി അവിടെ ചെന്ന് രണ്ടുമൂന്ന് മാനത്തണിയൊക്കെ കിട്ടി പക്ഷെ പ്രതീക്ഷിക്കാതെ ഒരു ചേറിനെ കിട്ടി പിന്നെ ഒരു ഇത് കരിമീനെ കിട്ടി അത് നമ്മൾ അവിടെ എത്തി ഒഴുക്കുണ്ട് പക്ഷെ നമ്മളിത് നമ്മുടെ ചൂണ്ടയിൽ കുരുത്തു എന്ന് പറഞ്ഞപ്പം തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു എന്നുവെച്ചാൽ നമ്മൾ ചെറു പ്രായത്തിൽതന്നെ കുരുത്തരം വരുമ്പൾ നമ്മൾ അവിടെ നിന്ന് മാമൻമാർ വരുമോ എന്ന് നോക്കിയാ ഇവന്മാർക്ക് ചേറിനെ കിട്ടി ഓ ഇവന്മാർക്ക് കരിമീനെ കിട്ടി അങ്ങനെ മാമന്മാർ വരുവാ കൂടുതൽ വന്ന് ഇതായി അങ്ങനെ അത് ഭയങ്കര ഒരു ഇതായിരുന്നു നമ്മൾ പ്രതീക്ഷിക്കാതെ കിട്ടിയൊരു അത് പിന്നെ നമ്മൾ എല്ലാരും കൂടെ ചേർന്ന് നമ്മൾ പൊരിച്ച് അങ്ങ് തിന്ന് അത് തന്നെ ഏറ്റവും വലിയ സന്തോഷം